കേരളത്തിലെന്ന് പറയുമ്പോള് കുർ തരത്തിലുള്ള കലാരൂപങ്ങള് കൊണ്ടു നിറഞ്ഞതാണ് കേരളമെന്നു പറയുന്നത് ഇപ്പോൾ കേരളത്തില് നമ്മള് നോക്കുവാണെന്നുണ്ടെങ്കില് എനിക്ക് തോന്നിയിട്ടുള്ളതെന്നു വെച്ചാല് കഥകളി കഥകളി അതുപോലെ തന്നെ മോഹിനിയാട്ടം കുച്ചിപ്പുടി പിന്നതുപോലെ തന്നെ ചാക്യാര്കൂത്ത് ഓട്ടന്തുള്ളല് ഇങ്ങനെയുള്ള കുറച്ച് കുറേ കുറേയധികം കുറേയധികം കലാരൂപങ്ങള് നമ്മളുടെ കേരളത്തിലുണ്ട് അപ്പം ഞാന് പറയുകയാണെന്ന് ഉണ്ടെങ്കില് കേരളത്തിന് പുറം ലോകം അതായത് മറ്റുള്ള അന്യ രാജ്യങ്ങളൊക്കെ ഇങ്ങനെയൊരു കലാരൂപം അറിയണം ഇങ്ങനെയൊരു കലാരൂപം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയണമെന്ന് ഞാനാഗ്രഹിക്കുന്ന കലകളാണ് ഒന്ന് കഥകളി പിന്നെ ഓട്ടന്തുള്ളല് കഥകളി ഓട്ടന്തുള്ളല് ചാക്യാര്കൂത്ത് ഈ മൂന്നു തരത്തിലുള്ള കലാരൂപങ്ങളാണ് എന്നെ സംബന്ധിച്ച് അത് പുറം ലോകം എന്തായാലും അറിയണം ഇങ്ങനെയൊരു കലാരൂപത്തിന്റെ ഈ കലാരൂപത്തിന്റെ ഭംഗി ഈ കലാരൂപത്തിന്റെ ഓരോ ആശയങ്ങള് ഈ കലാ ഈ ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറംലോകം അറിയണമെന്ന് ഞാനാഗ്രഹിക്കുന്നതാണ് കഥകളി ചാക്യാര്കൂത്ത് ഓട്ടന്തുള്ളല് നമ്മളതിൽ കഥകളി കഥകളിയില് പറയുകയാണെന്ന് ഉണ്ടെങ്കില് നമ്മളുടെ കേരളത്തിലെ കേരളത്തിലെ ഒരു മെയിനായിട്ടുള്ള ഒരു എന്താന്ന് വെച്ചാൽ എന് എന്താ പറയുക മെയിനായിട്ടുള്ള ഒരു കലാരൂപമാണ് അതുപോലെ തന്നെയാണ് ഓട്ടന്തുള്ളലും ചാക്യാര്കൂത്തും ഇതൊക്കെ പ്രാചീനകാലത്തന്നെ പണ്ടുകാലത്ത് ഇണ്ടായിരുന്ന കലാരൂപങ്ങളാണ് ഇപ്പോളും അത് നടന്നുകൊണ്ടിരിക്കുന്നു കൊറേയാള്ക്കാര് അത് പഠിച്ചോണ്ടും ഇരിക്കുന്നുണ്ട് അയില് മെയിനായിട്ടുന്നു പറയണത് ചാക്യാര്കൂത്താണ് അല്ലെങ്കില് ഓട്ടന്തുള്ളലാണ് ഏറ്റവും പഴേകാലത്ത് ഇണ്ടേയിരുന്ന ഒരു നല്ല ഒരു എന്താ പറയുക ഒരു ആര്ട്സ് ഫോർമ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുകയാണെന്ന് ഉണ്ടെങ്കില് ചാക്യാര്കൂത്ത് ചാക്യാര്കൂത്തിൽ തന്നെ ചാക്യാര്കൂത്ത് എന്ന് പറയുന്നത് ഒരു അമ്പലം അപ്പൊ കേരളത്തിലെ അമ്പലങ്ങളില് മാത്രം ഇങ്ങനെ കണ്ടുവരുന്ന ചാക്യാര്കൂത്തായിക്കോട്ടെ കഥകളി ആയിക്കോട്ടെ ഓട്ടന്തുള്ളലായിക്കോട്ടെ ഇത് മൂന്നെണ്ണവും ഇത് ഇങ്ങനെയുള്ള ഇത് പലതരത്തിലുള്ള കഥ ആര്ട്സ് ഫോമ്സുണ്ടെന്നുണ്ടെങ്കിലും മെയിനായിട്ട് പ്രധാനമായിട്ട് മൂന്നെണ്ണം എന്ന് പറയുമ്പോൾ അമ്പലങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് അമ്പലങ്ങളിലാണ് ഇത് മെയിനായിട്ട് അഭ്യസിക്കുക അഭ്യസിക്കുകയല്ല ഇത് എന്താ പറയുക കാണിക്കുക അപ്പോൾ അമ്പലത്തിലെന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോളാകും ചാക്യാര്കൂത്ത് ഓട്ടന്തുള്ളല് പോലെയുള്ള കലാരൂപങ്ങള് പ്രദര്ശിപ്പിക്കുക അപ്പോൾ നമ്മള് അതില് കൂടുതലായിട്ടും നമ്മള് കഥകളെടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മളുടെ പുരാണ മഹാകാവ്യങ്ങളില് നിന്നും മഹാകവ്യങ്ങളായിട്ടുള്ള രാമായണം മഹാഭാരതം പോലെയുള്ള പുരാണ ഗ്രന്ഥങ്ങളില് നിന്നാണ് ഇതിന്റെ കഥാസന്ദര്ഭങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതൊരു മഹാകാവ്യം മഹാ പുരാണം അങ്ങനെയുള്ള ഇതില് നിന്നൊക്കെ എടുക്കുന്നതുകൊണ്ട് അത് ആളുകളിലേക്ക് എത്തിക്കാന് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ഒരു പുരാണ മഹാകാവ്യങ്ങളുടെ അര്ത്ഥം ആശയം ഇതൊക്കെ മറ്റുള്ള ആള്ക്കാരിലേക്ക് എത്തിക്കാന് വേണ്ടിയിട്ടും ആണ് ഞാന് ഇങ്ങനെ എന്താ കഥകളിയും അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്നൂടെ ആപ്റ്റായിട്ടുള്ള മൂന്ന് കലാരൂപങ്ങളാണ് കഥകളി ഓട്ടന്തുള്ളല് ചാക്യാര്കൂത്തെന്ന് പറയുന്നത് മറ്റേ ഡാന്സ് ഫോമ്സാണെന്നുണ്ടെങ്കിലും അതിലും ഇങ്ങനെയുള്ള കഥകള് തന്നെയാണ് എടുക്കുന്നത് എന്നുടെങ്കിലും പക്ഷെ കാണികള്ക്കത് കൂടുതല് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ മൂന്ന് കലാരൂപങ്ങള് കൂടുതല് നമ്മളെ സഹായിക്കും കൂടുതല് നമുക്ക് ഹെല്പ്ഫുള് ആകുന്നത് ഈ മൂന്ന് കലാരൂപങ്ങളാവും അത് ആ ഒരു കലാരൂപങ്ങളുടെ വൈവിധ്യത അതിന്റെ വൈവിധ്യത ഇപ്പോളും വേറിട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ടുതന്നെ അത് അങ്ങനെയുള്ള ഒരു എന്താ പറയുക അതിന്റെ കോസ്റ്റ്യൂസ് അത് അതില് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലായിക്കോട്ടെ ആഭരണങ്ങളായിക്കോട്ടെ അതുപോലെത്തന്നെ കുറേയധികം ഒരു സാധാരണയൊരു ഡാന്സിന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മേക്കപ്പ് നമ്മള് കഥകളിക്ക് യൂസ് ചെയ്യുന്നത് അത് കുറെ നേരം കുറെ ത മണിക്കൂറുകള് കഴിഞ്ഞിട്ടാണ് അതിന്റെ മണിക്കൂറുകളെടുത്തിട്ടാണ് കഥകളിക്കൊക്കെ മേക്കപ്പിടുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ അതിന്റെയൊരു ഭംഗി പുറത്ത് കാണിക്കുക മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയെന്നതും കൂടെയാണ് ഈ ഞാന് ഉദേശിക്കുന്നത് ഞാന് പറഞ്ഞു വരുന്നത് അതാണ് മീന്സ് കഥകളികളുടെയും മറ്റുള്ള കഥകളികളുടെ കഥകളിയുടെയും ഓട്ടന്തുള്ളലിന്റെയും ചാക്യാര്കൂത്തിന്റെയും ഒക്കെ ഭംഗി പുറം ലോകം എന്തായാലും അറിയണ്ടതാണ് അങ്ങനെയുള്ളൊരു ക മൂന്ന് കലാരൂപങ്ങള് എക്സിസ്റ്റ് ചെയ്യണം ചെയ്യുന്നുണ്ട് ഇപ്പോളും അതിന്റെ എക്സിസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഭംഗി എപ്പോഴും മറ്റുള്ള ആളുകള്ക്കൂടി അത് അറിയണമെന്ന് തോന്നുന്നു